ഞാൻ ഞാൻ നൃത്തം ആരുടെ അടുത്തും പോയി പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്ത് അഞ്ചും ആറും ഏഴാം ക്ലാസ് ആ ഒരു യു പി സെക്ഷനിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ആന്വൽ ഡേയ്ക്ക് കളിക്കാനായിട്ട് സ്കൂൾ തന്നെ അറേഞ്ച് ചെയ്ത സാറിൻ്റെയടുത്തു നിന്ന് പഠിക്കുകയും സ്കൂളിൽ ആന്വൽ ഡേയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നലാണ്ട് നൃത്ത വിദ്യാലയത്തിൽ പോയി നൃത്തം പഠിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ സ്കൂളിലെ ആർട്സ് ഡേയ്ക്കും ആന്വൽ അങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം ഞാൻ തന്നെ പിള്ളേരെ പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റുക അങ്ങനത്തെ ഒരു ഒരിതിൽ അങ്ങനൊരിത് സംവിധാനം ചെയ്തിട്ടൊക്കെ ഉണ്ട് ഞാനങ്ങന്നെ മറ്റുള്ളൊരു ഇവിടെ പോയി പഠിച്ച് വലിയൊരു ഡാൻസറോ അങ്ങനെ അങ്ങനെ കളിക്കുന്നൊരാളൊന്നുമല്ല പക്ഷേ കുഴപ്പമിലാണ്ട് ഒരു പറ്റുന്ന പറ്റുന്നപോലെ കളിക്കുന്ന ഒരാൾ മാത്രമാണ്